ആ ചേച്ചി എന്താ വരാൻ പറഞ്ഞിട്ടിണ്ടായിരുന്നു റൂമിൻ്റെ കാര്യം എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ അതെ അല്ലേ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആണല്ലേ ഓക്കെ എത്ര വരും ആ ആ ഓക്കെ എത്ര വലുപ്പം ഉള്ളതാണ് വേണ്ടത് ചെറുത് ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ ബഡ്ജറ്റ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എത്ര ഒക്കെ കയ്യിൽ ബഡ്ജറ്റ് ഉള്ളത് എങ്ങനെ ആണ് അപ്പോൾ അതിന് അനുസരിച്ച് നമുക്ക് ആ ആ വേറെ എന്നാൽ നമുക്ക് ഇപ്പോൾ ഒരു ഒരു റൂം അല്ലേ

ആ ഒരു ഒരു അൻപതിൻ്റെ മുകളിലാണ് അൻപതിനായിരത്തിൻ്റെ മുകളിൽ എന്തായാലും വരും ആ പിന്നെ എത്ര ദിവസം കൊണ്ടാണ് പണി തീർക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും

ആ ആ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കാം അപ്പം നമ്മൾ ഇപ്പോൾ നിലവിൽ വേറെ സ്ഥലത്തും കൂടി വർക്ക് നടന്നു കൊണ്ട് ഇരിക്കുന്നുണ്ട് ഇതേ പോലെ അപ്പോൾ അവിടെനിന്ന് ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അത് മതി ആകുമല്ലോ

ആ നമുക്ക് പെട്ടെന്നു തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം നമുക്ക് ഇപ്പോൾ അവിടെ ഒരു വർക്ക് നടന്നു കൊണ്ട് ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് പേർ വന്നു പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കാം ഒരു മൂന്നാല് പേർ ഉണ്ടെങ്കിൽ ആ അത് അത് നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് തരാം നമുക്ക് കോൺട്രാക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയേണ്ടി വരില്ല നമ്മൾ എല്ലാ സാധനങ്ങളും ഇറക്കും അത് എല്ലാം പറഞ്ഞാൽ നിങ്ങൾ മെറ്റലും കല്ലും അതിന് അനുസരിച്ച് ഹോളോ ബ്രിക്സ് ഒക്കെ ഇറക്കി തരികയാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് സിമൻറ്റ് ഇറക്കുകയാണെങ്കിൽ നമുക്ക് അതിന് അനുസരിച്ച് ചെയ്ത് തരാൻ പറ്റും ആ ആ അങ്ങനെ ആയാലും മതി നിങ്ങൾ ഇപ്പോൾ ആ ഫസ്റ്റ് കുറച്ച് അഡ്വാൻസ് തന്നു പറഞ്ഞാൽ നമുക്ക് അതിന് അനുസരിച്ച് കല്ലും മെറ്റലൊക്കെ അടിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് അതിന് അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ പിന്നെ നിങ്ങൾ ഇറക്കി തരികയാണെങ്കിലും മതി അത് ഇപ്പോൾ എങ്ങനെയാണ് വെച്ചാൽ നിങ്ങൾക്ക് ചോയ്സ് പോലെ ഓക്കെ അപ്പം ആ നമുക്ക് ഇപ്പോൾ ഒരു പത്ത് പത്ത് രൂപ തന്നാൽ മതി ഇപ്പോൾ പത്തായിരം നമുക്ക് അതിന് ആ ആ അപ്പോൾ അതിന് നാളെ തന്നെ കല്ലും അതേപോലെ ഹോളോ ബ്രിക്സും അടിക്കുക ഹോളോ ബ്രിക്സും അടിച്ച് ഇടാൻ പറയുക ഒരു ഇതിന് ഒരു ചെറിയ റൂം അല്ലേ പറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് ഹോളോ ബ്രിക്സ് അടിച്ച് ഇടാൻ പറയുക ഓക്കെ അപ്പോൾ അതിന് ഉള്ള ഹോളോ ബ്രിക്സും നാളെ അടിക്കാൻ പറയുക ഒരു പത്ത് പതിനഞ്ച് ചാക്ക് സിമൻറ്റും ആ കൂടുതലാണ് നമുക്ക് കൊണ്ട് വരാൻ പറയുക ഓ ഇത് രണ്ട് മൂന്ന് വട്ടം ആയിട്ട് ആ ഒരു പത്ത് ചാക്ക് സിമൻറ്റും ഇടുക ആ പത്ത് ചാക്ക് സിമൻറ്റും ഇറക്കാൻ പറയുക അത് അതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ബാക്കി കൊണ്ടു വരിക നോക്കിയിട്ട് ചെയ്യാം നമുക്ക്

ആ അഡ്വാൻസ് എടുത്താൽ മതി ഗൂഗിൾ പേ ചെയ്ത് തന്നാലും മതിയോ ഓക്കെ ആ ശരി